ഇന്ത്യൻ സിനിമകളെക്കുറിച്ച് പരാമർശിക്കുവാണെങ്കിൽ അതിന് സംഗീതമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മള് ആദ്യം ഇമേജ് വിഷ്വൽസൊക്കെ കാര്യങ്ങളൊക്കെ നമ്മള് ആദ്യം ഷൂട്ട് ചെയ്യും അതില് പാടുന്ന പോലെയും കാര്യങ്ങളൊക്കെ ചെയ്യും നായകനും നായികയും ആയിരിക്കും അതില് ഒരു ഇത് അതില് വില്ലൻ ഉണ്ടാവാറില്ല സോങ്സില് കൂടുതലും വില്ലന്മാരൊന്നും ഉണ്ടാകാറില്ല എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നേന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മള് പാട്ടു പാടുന്ന പോലെ അഭിനയിച്ച് അങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യും അതിന് ശേഷമാണ് അതിലേക്ക് സോങ് ആഡ് ചെയ്യുന്നതൊക്കെ പിന്നെ സിനിമ സീരിയലുകളൊക്കെ ഏതാ ഇഷ്ട്ടം കാണാറെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സീരിയല് സീരിയല് ഞാനധികം കാണാറൊന്നുല്ല സിനിമകള് ലവ് ഫിലിംസൊക്കെ കൂടുതല് ഇഷ്ട്ടാണ് ഇഷ്ട്ടപ്പെട്ട ഫിലിം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എയ്റ്റീൻ പ്ലസ് അതുപോലെ തന്നെ തണ്ണീർ മത്തൻ ദിനങ്ങള് ഇതൊക്കെ എൻ്റെ ഫേവറിറ്റ് ഫിലിംസാണ് ഇഷ്ട്ടപ്പെട്ട നടൻ നടി അങ്ങനെ ഒരാളില്ല എല്ലാവരേയും ഇഷ്ട്ടമാണ് ഒരുപോലെ തന്നെ എല്ലാവരും അവരവരുടെ കഴിവ് പുറത്തെടുക്കുന്നു അപ്പം നമുക്കത് അതിനനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കണം അതാണല്ലോ അത് പിന്നെ ഇഷ്ട്ടമുള്ള സിനിമാഗാനങ്ങൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇന്നതാന്നൊന്നുമില്ല ഇഷ്ട്ടപ്പെട്ട എല്ലാ ഗാനങ്ങളും ഞാൻ കേൾക്കാറുണ്ട് അതായത് കേൾക്കുന്നതെല്ലാം തന്നെ എൻ്റെ ഫേവറിറ്റാണ് പിന്നെ എൻ്റെ ഫേവറിറ്റ് ഗായകനെക്കുറിച്ച് പറയാനാണെങ്കിൽ യേശുദാസിനെ ഭയങ്കര ഇഷ്ട്ടമാണ് പുള്ളീടെ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിരുന്ന് പോകും അതായത് ഭയങ്കര ഇഷ്ട്ടമാണ് അദ്ദേഹത്തിനെ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ട്ടമുള്ളത്